എൻ്റെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ഞാനാദ്യം ഫോണിൻ്റെ പീടികയിൽ കൊണ്ടുപോയി തന്നെ കാണിക്കും എന്താണ് പ്രശ്നം ആരെങ്കിലും എൻ എന്തെങ്കിലും രീതീലെന്തെങ്കിലും അമർത്തി പോയിട്ടുണ്ടൊ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ആണോ ഫോ ഫോണിൻ്റെ പ്രശ്നം ആണോ ഞാൻ ചെയ്ത തെറ്റാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോണിന്റെ പീടികയിൽ തന്നെ പോയിട്ട് ചോദിക്കാറാണ് സാധാരണ പതിവ് അവിടുത്തെ ചേട്ടന്മാർ നല്ല രീതിയിൽ പറഞ്ഞു തരികയും അതെന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും അത് നന്നാക്കി തരാറുമുണ്ട് പെട്ടെന്ന് തന്നെ കംപ്യൂട്ടറിന്റെ പ്രശ്നങ്ങൾ വെച്ചാൽ കംപ്യൂട്ടറിൻ്റെ പ്രശ്നങ്ങൾ വെച്ചാൽ ഇപ്പോൾ വൈഫൈ കണക് പിന്നെ എനിക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ എന്തെങ്കിലും ഡിസ്പ്ലേ പൊട്ടി പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ വാ വൈഫൈയിലാണ് ഞാൻ കേബിളിൽ ഓപ്പറെ പിന്നെ കേബിൾ ഏട്ടനെ ആണ് വിളിക്കാറ് അയാൾ വന്ന് ശരിയാക്കി തരാറാണ് പതിവ് പിന്നെ ഡിസ്പ്ലേ ഒക്കെ പൊട്ടി പോവുകയൊക്കെയാണെങ്കിൽ ഞാൻ കൂത്തുപറമ്പിലെ ഷോറൂം പിന്നെ ഇതിൻ്റെ ഷോറൂമിൽ തന്നെ കൊണ്ടുപോയി കാണിക്കാറാണ് പതിവ് പിന്നെ ലാപ്ടോപ്പിലൊക്കെ എന്തെങ്കിൽ പ്രശ്നം വരുമ്പോൾ ഒരേ ഒരേപോലെ തന്നെ കംമ്പ്യു കമ്പ്യുട്ടറും ചെയ്യുന്നത് പോലെ തന്നെ കേബിൾ ഓപ് ആളെയോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ലാപ്ടോപ്പിൻ്റെ അതിൻ്റെ ഇപ്പോൾ എൻ്റെ അതിൻ്റെ ഷോറൂമിലോ അങ്ങനെയൊക്കെ കൊണ്ടുപോയി കാണിക്കാറാണ് പതിവുള്ളത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഞാനെൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ ഏട്ടന്മാരെയോ ചേച്ചിമാരേയോ ഒക്കെ സമീപിക്കാറുമുണ്ട് സഹായത്തിനും പ്രശ്നകാര്യത്തിനും നല്ല സഹനകേന്ദ്രങ്ങൾ എൻ്റെ നാട്ടിലുണ്ട് കൂത്ത്പറമ്പിൽ തന്നെ നല്ല ഫോണിൻ്റെ പീടിക ഉണ്ട് പിന്നെ കമ്പൂട്ടറിന്റെയും ലാപ്ടോപ്പിന്റെയും ഒക്കെ ഷോറൂമുകൾ ഉണ്ട് അതുകൊണ്ടുതന്നെ നല്ല രീതിയിൽ അവർ ശരിയാക്കി തരും പ്രശ്നം പരിഹരിച്ച് തരുകയും തരുന്നുണ്ട്